ഞങ്ങളുടെ വീട്ടിൽ അരി വേവിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കലം എന്ന് പറയുന്നത് കലത്തിൽ അരി മാത്രമല്ല വെള്ളം കോരാൻ ഉപയോഗിക്കും വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കും അതുപോലെ തന്നെ കലം വലുതും ഉണ്ട് ചെറുതും ഉണ്ട് ചെറിയ കലങ്ങളിൽ ചീനി അതുപോലെ തന്നെ ചക്ക അങ്ങനെയൊക്കെ ഉള്ളത് വേവിക്കാൻ വേണ്ടിയിട്ട് പയറ് വേവിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കലം ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ ചരുവം ഉണ്ട് ചെറിയ ചരുവം ആ ചരുവത്തിനകത്ത് എന്തേലും സാമ്പാറ് അതുപോലെ തന്നെ തീയൽ അങ്ങനുള്ള കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചരുവങ്ങൾ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ചീനിച്ചട്ടിയും ചീനിച്ചട്ടിന്ന് വരുമ്പോഴ്ത്തേക്ക് ഇന്നത് കടുക് വറക്കാനും പപ്പടം കാച്ചാനും അതുപോലെ തന്നെ മുട്ട പൊരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ചീനിച്ചട്ടി ഉപയോഗിക്കാറുണ്ട് പിന്നെ വരുന്നത് അപ്പച്ചട്ടിയാണ് അപ്പച്ചട്ടിക്കകത്ത് അപ്പം ചുടാനും ഒറട്ടി വ ചുടാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അപ്പച്ചട്ടി ഉപയോഗിക്കും പിന്നെ വരുന്നത് ഫ്രൈ പ്പാനാണ് ഫ്രൈ പ്പാനിൽ മുട്ട വിരിക്കാനും ഉപയോഗിക്കും അതുപോലെ തന്നെ ചപ്പാത്തി ചുടാം അതുപോലെ ദോശ ചുടാം ദോശ ചുടാം മീൻ പൊരിക്കാം അങ്ങനെ അവിടെയാണ് നമ്മൾ ഫ്രൈ പാൻ ഉപയോഗിക്കുന്നത് പിന്നെ വരുന്നത് പുട്ട് കുറ്റിയാണ് പുട്ട് കുറ്റിക്കകത്ത് നമുക്ക് പുട്ടും ചുടാം അതുപോലെ തന്നെ ആവി പിടിക്കാം വേണ്ടിട്ടാനത്തെ വെള്ളം നിറച്ചിട്ട് ആവി പിടിക്കാനായിട്ട് നമുക്ക് പുട്ട് കുറ്റി ഉപയോഗിക്കാം പിന്നെ വരുന്ന ചെറിയ ചെറിയ സ്പൂണുകളാണ് ആ സ്പൂണ് നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള സ്പൂണുകളുണ്ട് ചെറുതുണ്ട് വലുതുണ്ട് അതായത് തോരൻ വിളമ്പാൻ